അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒൻപത് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൻപത്തി ഏഴ് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി പത്തൊൻപത്